ഇത് കെ സി സി വെജിറ്റബിൾസ് അല്ലേ കെ സി സി വെജിറ്റബിൾസില് ആ സാറെ ഞാനൊരു ഒരു മിഡിൽ വർക്കറാ ഏജന്റ് പോലെ ഈ ഹോൾ സെയിലിസ്സിന്ന് വെജിറ്റബിൾസ് എടുത്തിട്ട് വെജിറ്റബിൾ സെയിൽ ചെയ്യുന്ന ഒരാളായിരുന്നു ഓക്കേ എന്നായിപ്പിതിലേക്കി നിങ്ങളെ കോണ്ടാക്ററ് ചെയ്യുന്നത് ചോദിച്ചാൽ ഞാൻ കുറച്ച് വർഷം ആയിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റൊള്ള ഷോപ്പില് ഹോൾ അവിടന്നായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പം അവരിപ്പം ഷോപ്പ് ക്ലോസ്സായപ്പോഴത്തേക്ക് എനിക്ക് കുറെ ബൾക്ക് ഒഡേഴ്സും വന്നു അപ്പോഴത്തേക്ക് എനിക്കൊരൂ ഷോപ്പിന്നും കൂടെ എടുക്കണം അപ്പോൾ അതിനോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെയൊന്ന് കോണ്ടാക്ററ് ചെയ്തതായിരുന്നു എനിക്ക് വീക്കിലി എല്ലാ വീക്കിലിയും ത്രീ ഓർ ഫോർ ലോഡ്സ് വെച്ച് വേണം വെജിറ്റബിൾസെല്ലാം അത് നിങ്ങൾ അപ്പോഴത്തേക്ക് കൊടുക്കുന്ന വെജിറ്റബിൾസിന്റെ റേറ്റും നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എത്രെയെന്നും പറയാവോ ലൈക് ട്വൽ ട്വൽ പേർസന്റേജ് വെച്ച് മൊത്തം ടോട്ടല് ബട്ട് നമുക്ക് അപ്പുറത്തെ ഷോപ്പിന്ന് കിട്ടികൊണ്ടിരുന്നത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വെച്ചായിത് ഫിഫ്റ്റീൻ പേർസെൻറ്റേജാ നമുക്ക് ഇൻസെന്റീവും എല്ലാം കൂടേംക്കൂട്ടി നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിലായിരുന്നു അവർ തന്നോണ്ടിരുന്നത് ലൈക് നമ്മൾ നമ്മളിപ്പം രണ്ട് ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ടല്ലല്ലോ സെയിൽസ് നടത്തുന്നത് ഇതിപ്പം വീക്കിലി നാലല്ല അഞ്ച് ലോഡ് വെച്ച് കയറുകയും ചെയ്യുന്നുണ്ട് ഹ്യൂജ് ബിസിനസ്സും നടക്കുന്നുണ്ട് നമുക്കൊക്കെ നമ്മൾക്ക് എന്തേലും ലാഭം അതിൽ കിട്ടണ്ടേ നിങ്ങളുടെ അവിടെന്ന് നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് ട്രാവെല്ലിങ് എക്സ്പെൻസോണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫീസൊണ്ട് ലൈക് നം നമുക്ക് ഇപ്പം ഫോർ ഡിസ്ട്രിക്റ്റിൽത്തന്നെ നമുക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ട് നമ്മൾ അവിടെന്നെല്ലാം കളെക്ററ് ചെയ്ത് നമ്മൾ കുറെ വെജിറ്റബിൾ ഷോപ്പിലും വില്ലേജസ്സിലുള്ള ഷോപ്പിലും എല്ലാം കൊടുക്കുന്നുണ്ട് യ്യാ അപ്പോഴത്തേക്കും അവിടെന്നെല്ലാം കളെക്ററ് ചെയ്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ കറന്റിലി ഇപ്പോൾ നമ്മൾ ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് നമുക്കിപ്പം ഇത് ചെറിയ ഷോട്ടേജ് വന്ന് കെടക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് കോൺടാക്ററ് ചെയ്തത് കുറെ ഹോൾസെയിലേഴ്സിനെ അല്ല നമ്മൾ നമുക്കിപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്ടിൽ വെജിറ്റബിൾ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയാണ് പ്രൊഡക്റ്റ് ലൈക് നമ്മൾ നിങ്ങളുടെ ഗ്യാരേജിൽന്ന് എടുത്തോളും നമ്മളെന്നെ ലേബേഴ്സ് വന്ന് ലോഡ് ചെയ്തോളും എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് സാധനം പ്രൊവൈഡ് ചെയ്യുക ദാറ്റ് സ് ഓൾ അത്രയേ ഉള്ളൂ

ആ ഓക്കേ അങ്ങനെയാണേൽ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഷോപ്പിലോട്ട് വരാം അഡ്രസ്സൊന്ന് എനിക്കൊന്ന് ഈ നമ്പറിലോട്ട് വാട്ട്സപ്പ് ചെയ്യോ ഷെയർ ചെയ്യോ ചെയ്താൽ മതി ആ ഓക്കേ ശരിയെന്നാൽ